പതിനഞ്ച് പത്ഥ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഇരുപത്തി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്ത് പത്ത് രണ്ടായിരത്തി ഒന്ന് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനെട്ട് പത്ത് രണ്ടായിരത്തി നാല്